കലാകരകൗശല മേഖല സംസ്ഥാനത്തിനെ സംസ്കാരിക സ്വാതന്ത്ര്യം അതായത് കൾച്ചറൽ ഐഡന്റിറ്റി എന്ന് പറയുന്നത് നമ്മളെ കേരളത്തിൽ കുറേ കൾച്ചറൽ ഐഡൻറ്റിറ്റികൾ ഉണ്ടായിരുന്നു പണ്ടൊക്കെ ഇപ്പം നല്ല കുറഞ്ഞു കുറഞു കുറഞ്ഞു വരുകയാണ് അപ്പം ഞാൻ എൻ്റെ അടുത്തൊരു എൻ്റെ വീടിന്നടുത്തായിട്ടൊരു ഓട് ഫാക്ടറിയുണ്ട് ഓട് ഫാക്ട്രീ എന്ന് പറയുന്നത് കൺ കളിമണ്ണുമായിട്ടൊക്കെ ഉണ്ടാക്കുന്ന ഒരു സംഭവമാണല്ലോ ഓട് അപ്പം അത് പണ്ട് കാലത്തെ വീടുകളിൽ മേൽക്കൂര പോലെ അതായത് ഓട് ഇടുന്നതാണ് പണ്ട് കാലത്തെ വീടുകൾ ഇപ്പത്തെ കാലം എന്ന് പറയുന്നത് വാർപ്പിടലാണ് പക്ഷെ പണ്ട് കാലം എന്ന് പറയുന്നത് ഓടിട്ടിട്ടാണ് മൊത്തായിട്ട് വീട് കവറ് ചെയ്യുക ഓട് എന്ന് പറഞ്ഞത് കേരളത്തിൻ്റെ ഒരു തനിമയും കേരളം പണ്ട് എങ്ങനെ ആയിരുന്നു എന്ന് കാണിക്കുന്ന ഒരു സംഭവമാണ് ഓട് കുറേ പഴയ പഴയ കാലങ്ങളിലെ കൊട്ടാരങ്ങൾക്കും അതുപോലെത്തന്നെ ചെറിയ ചെറിയ വീടുകൾക്കും ഒക്കെ ഓടായിരുന്നു നിർമ്മിച്ചത് ഓടായിരുന്നു ഇട്ടുകൊണ്ടിരുന്നത് അപ്പം ഓട് എന്ന് പറയുന്നത് കേരളത്തിൻ്റെ പഴയ കാലങ്ങളെ ഓർമ്മിപ്പിക്കുന്നു കേരളത്തിന് കൾച്ചറൽ ഐഡന്റ്റിറ്റി ഒന്നാംസ്ഥാനം തന്നെ കൊടുക്കണം ഓടിന് പിന്നെ അതുപോലെത്തന്നെ രണ്ടാംസ്ഥാനം നമ്മൾ ആർക്കാണെന്ന് വിചാരിക്കുകയാണെങ്കിൽ അത് നമ്മളെ സ്വന്തം കയറാണ് കയർ എന്ന് പറയുന്നത് പ്രധാനപ്പെട്ട നമുക്കിപ്പം എന്തിനും കയറ് വേണം എന്തെങ്കിലും കെട്ടാനോ അയൽ അത് അതുപോലെത്തന്നെ ഊഞ്ഞാൽ നമുക്ക് കയറ് വേണം അപ്പം കേരളത്തിൽ പഴയ കാലത്ത് പഴയ കാലത്ത് പറഞ്ഞാൽ കുറേ മുൻപ് കാലത്ത് നയൻറ്റീസ്ലൊക്കെ കേരളത്തിലുണ്ടായിരുന്നത് കയർ മെടഞ്ഞെടുക്കലാണ് സ്ത്രീകൾ കുറേ ആൾക്കാർ കൂട്ടം കൂടി നിന്നിട്ട് ചേരിയിൽ നിന്നാണ് അവർ കയർ ഉണ്ടാക്കുന്നത് അപ്പം കയർ മെടഞ്ഞ് മെടഞ്ഞ് മെടഞ്ഞ് എടുത്തിട്ടാണ് അവർ കയർ ഉണ്ടാക്കുന്നത് അപ്പം അതൊരു അതിപ്പം ഇപ്പോഴും ഈ ഈ സമയത്ത് അതായത് ഈ ഒരു കാലഘട്ടത്ത് കയർ മെടയാൻ പോലും ആൾക്കാരില്ല മെഷീനായിട്ട് ചെയ്യുന്ന ഓരോരോ സംഭവങ്ങളാണ് ബ്രൗൺ ഷെയ്ഡ് കളറായിരുന്നു കയറിന് ഉണ്ടായിരുന്നത് ഇപ്പത്തെ കയറിന് പല ഷെയ്ഡുകളും ഉണ്ട് അപ്പം കേരളത്തിൻ്റ ഒരു ഐഡന്റ്റിറ്റി ആയിരുന്നു കയർ എന്ന് പറയുന്നത് പിന്നെ അതുപോലെത്തന്നെ കുറേ കുറേ കുടുംബങ്ങൾക്ക് പാരമ്പര്യമായിട്ട് കിട്ടുന്ന സ്വർണ്ണം പാരമ്പര്യമായിട്ട് കിട്ടുന്ന വീട് അങ്ങനെ പാരമ്പര്യമായിട്ട് കിട്ടുന്ന സ്ഥലം ഒക്കെ ഉണ്ട് പിന്നെ ചിഹ്നങ്ങളായാലും മൂല്യങ്ങളായിട്ടും പാരമ്പര്യമായിട്ടും അല്ലാതെയും കിട്ടുന്ന കുറേ കൾച്ചറൽ ഐഡൻന്റ്റിറ്റികളാണ് ചില കുടുംബങ്ങൾക്ക് ഉള്ളത്